പത്രമെന്ന് പറയുമ്പോള് എനിക്കീ മനോരമ പത്രത്തിനോടാണ് ഇഷ്ടം കാരണം എൻ്റെ വീട്ടില് സ്ഥിരമായിട്ട് വരുത്തുന്നത് മനോരമ പത്രമാണ് അതിപ്പോള് അതിങ്ങനെ കണ്ട് കണ്ട് ശീലമായി എന്നു തോന്നുന്നു നല്ല ഭംഗിയാണ് പുറത്തുനിന്നുതന്നെ കാണാൻ അതുപോലെ എനിക്കിപ്പോള് മനോരമ പത്രമാണിഷ്ടം പിന്നെ മാസികയെന്നു പറയുമ്പോള് വിന്നേഴ്സ് വിന്നേഴ്സാണ് ഞാന് വായിക്കാറുള്ളത് ജി കെ കൊസ്റ്റിൻസ് ഉണ്ട് പിന്നെ ഓരോരുത്തരുടെ ജീവിത കഥകളൊക്കെയുണ്ട് അതൊക്കെ വായിച്ചിരിക്കാനാണ് മനസ്സിന് ഒരിതാണ് റിലാക്സേഷൻ ആണ് ഇപ്പോള് ഇമോഷണലായിട്ടുള്ള കാര്യങ്ങള് കാണും ഹാപ്പിനെസ്സ് ആയിട്ടുള്ള കാര്യങ്ങള് കാണും അവര് സക്സസ് ആയ കാര്യങ്ങള് കാണും ഇനിയിപ്പോള് അവർ ഫെയിലിയാറായ കാര്യങ്ങള് കാണും എന്ത് കാണാനും ആ ഒരു ഇതില് ആ ഒരു സ്റ്റോറിയൊക്ക വിന്നേഴ്സില് വരാറുണ്ട് പിന്നെ ഞാൻ വനിത വായിക്കാറുണ്ട് വനിത ഞാൻ അങ്ങനെ വായിക്കാറില്ല വല്ലപ്പൊഴുമൊക്ക വായിച്ചാല് എന്നാലും എനിക്ക് ഇഷ്ടം വിന്നേഴ്സ് വായിക്കാനാണ് കാരണം ഒത്തിരി ജി കെ കൊസ്റ്റിൻസ് ഉണ്ട് അതിനൊക്കെ ആൻസേർസും അതില്ത്തന്നെ ഉണ്ടാകും പിന്നാ വ്ളോഗ്സെന്ന് പറയുമ്പോള് എനിക്കങ്ങനെ വ്ളോഗ്സൊന്നും കാണുന്നത് ഇഷ്ടമല്ല ഞാനങ്ങനെ കാണാറില്ല